ഞങ്ങളുടെ പ്രദേശത്തെ എം എൽ എ ശ്രീമാൻ റോഷി അഗസ്റ്റിൻ അവര്കളാണ് എം പി ഡീൻ കുര്യാക്കോസ് അവര്കളാണ് പഞ്ചായത്ത് പ്രസിഡൻ്റ് രമ്യ റെനീഷ് അവര്കളാണ് അതിൽ ഞങ്ങൾ കൂടുതലും ഇടപഴകാറുള്ളത് ഈ പഞ്ചായത്ത് പ്രസിഡൻ്റുമായാണ് പഞ്ചായത്ത് പ്രസിഡൻ്റ് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം തന്നെ സഹകരിക്കാറുണ്ട് ഏത് കാര്യം ചോദിച്ചാലും ചെയ്തുതരാറുണ്ട് ഞങ്ങൾക്ക് നല്ല സേവനമാണ് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ചെയ്തുതന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡൻ്റ ഞങ്ങളുടെ ഒരു കൂട്ടുകാരിയെ പോലെയാണ് ഞങ്ങളുടെയടുത്ത് ഇടപെടാറ് എന്നും ഏത് കാര്യം പറഞ്ഞാലും എപ്പോള് വിളിച്ചാലും ഫോണെടുക്കുകയും അതിന് മറുപടി പറയുകയും എല്ലാം ചെയ്തുതരുന്ന നല്ല ഒരു അനുഭവസമ്പത്തുള്ള ഒരു സ്ത്രീയാണ് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഞങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുതരാറുണ്ട് പിന്നെ എം എൽ എ എം പി എന്നിവർ ഇവിടെ ഈ പ്രദേശത്തേക്ക് നമുക്കാവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവര് ചെയ്തുതന്ന് ഞങ്ങളെ സഹായിക്കാറുണ്ട് ഏതാവശ്യം പറഞ്ഞാലും അവരും വന്ന് സഹകരിക്കുകയും മറ്റുള്ളവരുമായിട്ട് കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ എല്ലാ കാര്യങ്ങളും നടത്തി തരികയും ചെയ്യുന്ന രണ്ട് മഹദ് വ്യക്തികളാണ് ഞങ്ങളുടെ എം എൽ എയും എം പിയും